ഹലോ അ ഹലോ മിനിയായിരുന്നു അതെയല്ലോ ആഹാ പറഞ്ഞോളൂ

അതേ ഞാൻ അന്ന് സാധാരണ പോയിന്റ് മതി പിന്നെ ആ ചുരിദാറിന് സ്ലിറ്റ് വേണ്ട കൈമുട്ടിനു മുകളില് മതി പിന്നെ കഴുത്തൊത്തിരി അ കഴുത്ത് യു കഴുത്ത് മതി അതിന് സാധാരണ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചത് പോലെതന്നെ തയ്ച്ചാല് മതി കേട്ടോ എനിക്കതൊത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആ അതുപോലെ മതി ഇപ്പോള് ഒത്തിരി തയ്യലുണ്ടോ അതെയല്ലേ വേറെ സഹായിക്കാൻ ആരെങ്കിലുമുണ്ടോ അതെയല്ലേ പിന്നെ ആ ഇത് എനിക്കുള്ളത് ചേച്ചി തന്നെ തയ്ക്കണം മ്മ് വേറെയാരെക്കൊണ്ടും ചെയ്യിക്കരുത് ആ അപ്പം എനിക്കൊരു കല്യാണത്തിനു പോകാനുള്ളതാണ് അപ്പം നല്ല ഭംഗിയായിട്ട് തയ്ച്ചുതരണം കേട്ടോ ആ മ്മ് അടുത്തയാഴ്ചത്തെ എനിക്ക് ഒന്നൊരു മൂന്നു ദിവസം കഴിയുമ്പോഴത്തേക്ക് തരാമോ അപ്പോള് അടുത്തയാഴ്ച എനിക്ക് രണ്ടുമൂന്ന് വിരുന്നുകാര് വരുന്നുണ്ട് അപ്പോള് അവർക്കിത്തിരി ഡ്രസ്സ് എടുക്കാമെന്നോർത്തു തയ്ക്കാനായിട്ട് ഞാന് കൊണ്ടുവരാം മ്മ് അപ്പോള് അതുംകൂടെ ഒന്ന് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ലല്ലോ ആ അപ്പോള് സമയത്തുതന്നെ അതുംകൂടെയൊന്ന് തയ്ച്ചുതരണം മ്മ് മ്മ് അവിടെയും ഹോൾസെയിലായിട്ട് തയ്യല് സ്വീകരിക്കുന്നുണ്ടോ കടകളികലേക്കൊക്കെ തയ്ച്ചുകൊടുക്കുന്നുണ്ടോ

അപ്പോള് കൂടുതല് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ടല്ലേ ആ അപ്പോള് എനിക്ക് കഴിഞ്ഞപ്രാവശ്യം തയ്ച്ചതു പോലെതന്നെ തയ്ച്ചുതന്നാല് മതി കേട്ടോ ആ പിന്നെ സാരി ബ്ലൌസും അവിടെ തയ്ക്കുന്നില്ലേ ആ സാരി വർക്ക് സാരി വർക്ക് ചെയ്തുകൊടുക്കാറുണ്ടോ അതെയല്ലേ ആ ആ അപ്പോള് അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോള് ഇനിയും ആ ഇനി എനിക്ക് ചെയ്യാനുള്ള വർക്കുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നാല് മതിയല്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ

മ്മ് ഇതെത്ര നാളായി ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങിയിട്ട് ഓ അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് തയ്ക്കുന്നത്

അതെയല്ലേ ആ തയ്ച്ചത് ഇട്ടിരിക്കുന്നത് കാണുന്നവരൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ നല്ല അഭിപ്രായമുണ്ട് ആ പിന്നെ വേറെയെന്താണ് വിശേഷങ്ങള് ചേച്ചിയിടുന്ന സാരി ബ്ലൌസൊക്കെ ചേച്ചി തന്നെയാണോ തയ്ക്കുന്നത് അതെയല്ലേ മ്മ്

ഓ വേണ്ട അങ്ങനെ ഫാഷനൊന്നുമില്ല എനിക്ക് ഫാഷനൊന്നുമില്ല ഇഷ്ടമില്ല സാധാരണ അ തയ്ക്കുന്നത് ഭംഗിയായിട്ടിരുന്നാല് മതി

അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല

മ്മ് ഞാൻ കൊണ്ടുവന്ന് തരാം കേട്ടോ തരുമ്പോള് ഞാനതിന് അളവ് ബ്ലൌസുകൂടെ കൊണ്ടുവന്നുതരാം കേട്ടോ ഞാന് ചുരിദാർ വാങ്ങിക്കാൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ മ്മ് വേറെയെന്താണ് വിശേഷം ആ നമുക്കെന്നാല് വരുമ്പോള് നേരിട്ട് കാണാം കേട്ടോ ആ പിന്നെത്തെ ആ ഓക്കേ